അത് ഓരോ പ്രദേശത്തെ രീതി അനുസരിച്ചു വിനോദസഞ്ചാരം പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് തൊഴിലവസരങ്ങൾ സൃഷ്ഠിക്കുന്നത് നമ്മുടെ ആലപ്പുഴ മേഖല എടുത്താൽ അല്ലെങ്കിൽ കുട്ടനാട് ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉള്ള ഹൗസ്ബോട്ടുകൾക്ക് ഹൗസ്ബോട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് അവിടെ കുക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ മീൻപിടുത്തക്കാർ അങ്ങനെയുള്ള പല ആളുകൾക്കും തൊഴിലവസരങ്ങൾ നന്നായിട്ടു പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഈ ഒരു മേഖല കുട്ടനാടു മേഖല അതുപോലെ തന്നെ കാർഷിക മേഖല അത് അതു കാണാൻ വരുന്നവരുണ്ട് അങ്ങനത്തെ ഒരു ഫാം ടൂറിസം അതുമായിട്ടു റിലേറ്റഡ് ആയിട്ട് ആളുകൾ ഇവിടെ കുറെ നാൾ സ്റ്റേ ചെയ്ത് നിൽക്കുന്ന രീതിയിലേക്ക് ഒക്കെ നമുക്ക് വിനോദ സഞ്ചാരികളെ ആകർഷിക്കാൻ സാധിച്ചാൽ ഒരു ഫാം ടൂറിസം പോലുള്ളതൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ സാധാരണ ചെയുന്ന അതേ ജോലികൾ തന്നെ കൺടിന്യൂ ചെയ്തുകൊണ്ട് അവർക്ക് ഒരു നല്ല മികച്ച തൊഴിലവസരം സൃഷ്ടിക്കാനായിട്ടു സാധിക്കും ഇപ്പോൾ ഇവിടെ വരുന്ന ആളുകളൊക്കെ ആണെങ്കിലും അവർക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കണം പലരും പുസ്തകങ്ങളിലൂടെ വായിച്ചും ഇൻ്റർനെറ്റിലൂടെ കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ ഇവിടേയ്ക്ക് വരിക അത് വരുമ്പം അത് അവർ ചിന്തിച്ചത് അല്ലെങ്കിൽ അവർ അറിഞ്ഞത് എന്താണോ അതു തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം അത് ചില സമയത്തെങ്കിലും സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് അവരുടെ നിന്നു കൂടുതലായിട്ട് പണം ഈടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സെക്ഷുവൽ ആയിട്ട് അവരെ കാണുന്നതു കൊണ്ടോ അതൊക്കെ കൊണ്ട് കുറേയൊക്കെ ചില സമയങ്ങളിൽ ചിലരിൽ നിന്നെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടത്തെ വിനോദസഞ്ചാരികളുമായിട്ട് നമ്മൾക്ക് വലിയ പ്രശ്നനങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കാരണമെന്നു വച്ചാൽ വരുന്നവരുമായിട്ടു നമ്മൾ അധികം ഡീല് ചെയ്തട്ടില്ല അതുകൊണ്ടു തന്നെ ആയിരിക്കാം ആകെയുള്ളത് നമ്മൾ ഈ ഹൗസ്ബോട്ടിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ആലപ്പുഴയിലൂടെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണുന്നു എന്നുള്ളതല്ലാതെ അവർ വളരെ മാന്യമായിട്ടാണ് നമ്മുടെ ഒക്കെ ഒരു വഴി ചോദിച്ചാലോ അല്ലെങ്കിൽ ഒരു ഹെൽപ് ചോദിച്ചാലോ അവർ പെരുമാറുന്നത് കൂടുതലും അങ്ങനെ ഉള്ളതാണ് പിന്നേ അത് ഇന്ത്യയ്ക്കു പുറത്തുള്ളവർ അങ്ങനെയാണ് പക്ഷെ കേരളത്തിന് പുറത്ത് നിന്നു അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ അത്രമാത്രം നന്നായിട്ടു പെരുമാറണം എന്നില്ല എന്നാൽ തന്നെയും നമ്മുടെ ഇപ്പോൾ ഓരോ പ്രദേശത്തെ അനുസരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കേരളത്തിലെ ബാക്കി സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കടൽത്തീരം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ക്യൂബാ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൂടുതലായിട്ടു ചെയ്തു കഴിഞ്ഞാൽ കോവളത്തും അതുപോലെ തന്നെ മാരാരികുളത്തൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അതു നല്ലതായിരിക്കും ഇപ്പോൾ മൂന്നാറു ഭാഗത്തേകൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് ഓരോ പ്രദേശവും ആയി ബന്ധപെട്ട് പല രീതിയിലായിരിക്കും നമ്മുടെ ഈ ഞങ്ങളുടെ ഈ പ്രദേശം നോക്കി കഴിഞ്ഞാൽ ആലപ്പുഴ നോക്കി കഴിഞ്ഞാൽ ഈ കുറച്ച് കടലിൻ്റെ ഒരു പ്രദേശവുമുണ്ട് കുടുതലും കുട്ടനാട് ഭാഗവുമാണ് കൃഷിയും ഹൗസ്ബോട്ടും മീൻപിടുത്തവും അങ്ങനെയുള്ള സ്ഥലങ്ങൾ ആണ് അപ്പോൾ ഹൗസ്ബോട്ടിങ്ങും ബാക്കി ഉള്ള ബോട്ടിംഗ് പിന്നെ കയാക്കിങ് ഒക്കെ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് കൂടെ സാധിക്കണം നമ്മൾ ഈ ചെയ്യുന്ന ഇവിടെയുള്ള ആക്ടിവിറ്റീസ് ഇവിടത്തെ എന്തൊക്കെയാണ് നമുക്കുള്ള കൊടുക്കാവുന്ന കാര്യങ്ങൾ എന്നുള്ളത് മറ്റുള്ള ആളുകളിലേക്ക് കൂടുതലായിട്ട് വിനോദസഞ്ചാര മേഖലയിൽ വരുന്നവർക്ക് എത്തിക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ തൊഴിലവസരങ്ങൾ ഒത്തിരി ഉണ്ടാവും അതുപോലെ തന്നെ ചെറിയ ചെറിയ ചായക്കടകൾ ഒക്കെ ആണെങ്കിലും അതു തപ്പി വരുന്ന ഒത്തിരി ആളുകളുണ്ട് ഏറ്റവും നാടൻ രീതിയിലുള്ള നല്ല ഫുഡ് നല്ല വൃത്തിയോടുകൂടി കൊടുക്കാൻ സാധിക്കണം പലർക്കും ഉള്ള ഒരു ചീത്തയായിട്ടുള്ള ഇതു വരുന്നത് വൃത്തിയില്ലായ്മ പലപ്പോഴും പറയാറുണ്ട് നമ്മടെ ഈ നാട്ടിൻ പ്രദേശം ആയതുകൊണ്ട് തന്നെ അത് ഏറ്റവും നല്ല വൃത്തിക്ക് കൊടുക്കാനായിട്ടു സാധിക്കണം പലപ്പോഴും പുറത്തുന്നു വരുന്ന ആളുകൾ വൃത്തിയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് അതുകൊണ്ടു തന്നെ നല്ല വൃത്തിയ്ക്കു അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ അത് വളരെ നല്ലതായിരിക്കും